എല്ലാ തരത്തിലുള്ള സംഗീതവും എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എങ്കിലും ഏറ്റവും കൂടുതല് ഇഷ് ഇഷ്ടമുള്ളത് സ്വരങ്ങളുള്ള സംഗീതമാണ് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല സ്വരങ്ങള് കേള്ക്കുമ്പോൾ മനസ്സിന് വളരെയധികം ഒരു സന്തോഷമോ കുളിർമ്മയോ കാലുകൊണ്ട് ചുവടുകളതിനൊപ്പിച്ച് വയ്ക്കുവാനൊക്കെ തോന്നാറുണ്ട് ഞാനത് കഴിവതും ചെയ്യാറുമുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളതാണ് സാ രി ഗ മ പ ധ നി സരിഗമപധനിസാ അത് കേള്ക്കുമ്പോൾ അറിയാതെ തന്നെ കയ്യും കാലുകളുമെല്ലാം അതനുസരിച്ചിട്ട് ചലിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സ്വരങ്ങളുള്ള പാട്ടുകളാണ് ഞാനേറ്റവും കൂടുതലിഷ്ടപ്പെടുന്നത് വളരെയധികമെനിക്ക് വ വളരെയധികം ഇഷ്ടമാണ് അതുകൂടാതെ തന്നെ മെലഡി സോങ്ങുകള് ഇങ്ങനെ ഒഴുകുന്ന ടൈപ്പിലുള്ള ഒഴുകിപ്പോവുക എന്നുള്ള രീതിയിലുള്ള വളരെയധികം ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള സംഗീത പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ് മനസ്സിന് വളരെയധികമത് ഒരു സന്തോഷവും പെട്ടെന്ന് നമ്മളെന്തെങ്കിലും നമ്മുടെ കുടുംബത്തിലൊത്തിരിയേറെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളിലൂടെ നമ്മള് കടന്ന് പോകാറുണ്ട് പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് ഈ സമയത്തൊക്കെ നമ്മളൊരു നല്ല ഒരു മെലഡി സോങ്ങ് കേട്ടുകഴിഞ്ഞാൽ പാട്ട് കേട്ടുകഴിഞ്ഞാൽ നമക്ക് വളരെ മനസ്സിന് ശാന്തമാവുകയും നമുക്കാ കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പെട്ടെന്നു തന്നെ റിക്കവറ്യ്ത് അടുത്ത കാര്യത്തിലേക്ക് നമ്മള്ക്കിത് നോക്കി ചിന്തിച്ചിരിക്കാൻ നേരമില്ല നമുക്കടുത്ത കാര്യം ചെയ്യണമെന്നുള്ളൊരു പോസിറ്റീവ് എനർജി ഒരു പോസിറ്റീവ് വൈബ് തന്നെ നമുക്ക് സംഗീതം തരാറുണ്ട് അതേതവസ്ഥയിലിരുന്നാൽ പോലും ഏത് പാട്ട് തന്നെ കേട്ടാൽ പോലും തരാറുണ്ട് എങ്കിൽ തന്നെയും മെലഡി സോങ്ങും ക്ലാസ്സിക്കൽ സോങ്ങ്സുമാണ് കൂടുതൽ നമുക്ക് ഹൃദയത്തെ തൊട്ടുണർത്തുന്നത് ചില പാട്ടുകള് കേള്ക്കുമ്പോള് നമുക്ക് സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോന്നറിയാതെ കണ്ണുകളിൽ നിന്നൊക്കെ വെള്ളം പോലും വരാറുണ്ട് വെള്ളം വരുക അത്രയേറെ നല്ല നല്ല ഹൃദയത്തിൽ തൊട്ടുണർത്തുന്ന സംഗീതങ്ങള് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോകാറുണ്ട് നമ്മള് വളരെയധികം അതാസ്വദിക്കുന്നുണ്ട് അതിനൊത്ത് ചുവടുവച്ച് കാല് കാല് ചലിപ്പിച്ച് സ്റ്റെപ്പുകളുണ്ടാക്കി ഡാൻസ് നൃത്തം ചെയ്യാനും നമ്മള് ശ്രമിക്കാറുണ്ട് അത് സംഗീതത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം സംഗീത സംവിധായകന്മാരേയും ഒക്കെ വളരെയധികം ഇഷ്ടമാണ് ഏറ്റവും കൂടുതല് ചിത്ര ചേച്ചിയുടെ പാട്ടുകള് വളരെയധികം ഇഷ്ടമാണ് ചിത്ര ചേച്ചിയുടെ എല്ലാ പാട്ടുകളും അതും നന്ദനത്തിലെ സോങ്ങ് നന്ദനത്തിലെ ആ സോങ്ങ് ആ പാട്ട് ഇന്നും ഹൃദയത്തെ ഇങ്ങനെ ബും ബും ന്ന് പറഞ്ഞ് തൊട്ടുണർത്തും കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ആ പാട്ടിന്നും കേരളക്കരയാകെ ഹൃദയ പുളങ്കിതമാക്കിയ ഒരു സോങ്ങെന്ന് പറയുന്നത് ചിത്ര ചേച്ചിയുടെ പാട്ടെന്ന് പറയുമ്പോള് ശരിക്കുമത് കേള്ക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ പ്രയാസങ്ങളും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒഴുക്കിക്കൊണ്ടുപോകുന്നത് പോലെയാണ് തോന്നുന്നത് ഒഴുക്കിക്കൊണ്ടുപോകുന്നത് അതുപോലെയാണ് സംഗീതമെന്ന് പറയുന്നത് സംഗീതം നമുക്ക് സംഗീതത്തെക്കുറിച്ച് അറിയാനായിട്ട് പറയാൻ വാക്കുകളില്ല അത് വാക്കുകൾക്കതീതമാണ് അതേത് തരത്തിലുള്ള പാട്ടുകളായാൽ പോലും മെലഡിയാണങ്കിൽ ക്ലാസ്സിക്കലാണേലും ഡപ്പാൻ കൂത്താണേ തന്നെയും ഏത് രീതിയിലായാൽ പോലും സംഗീതം എന്ന് പറയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല അത് വാക്കുകൾക്കതീതമാണ് അത് നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്നതാണ് ഏതൊരു ഏതൊരു ദുഷ്ട മനസ്സിലുള്ളവരേയും അലിയിപ്പിക്കുന്ന ഒന്നാണ് സംഗീതമെന്ന് പറയുന്നത് അത് കൊച്ചുകുട്ടികൾക്കണേ പോലും ഇപ്പോള് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പോലെയും ജനിക്കുന്ന കുഞ്ഞുങ്ങളല്ല ഗര്ഭസ്ഥ ശിശുക്കൾ പോലും അവരുടമ്മ പാടുന്നതോ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ ആരെങ്കിലും പാടുന്നതോ കേള്ക്കുന്നതോ ഒക്കെ ആസ്വദിക്കുന്ന പല കാര്യങ്ങളും നമ്മള് ഇന്ന് വീഡിയോയിലൂടെയും മീഡിയായിലൂടെയും ഒക്കെ നമ്മള് കാണുന്നതാണ് അപ്പോള് അത്രയേറെ സംഗീതത്ര ഗർഭസ്ഥ ശിശുവിന് പോലും സംഗീതത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കുമെങ്കിൽ സംഗീതമെന്ന് പറയുന്നത് വാക്കുകൾക്കതീതമാണ് വാക്കുകൾക്ക് അപ്പുറമാണ് അതുകൊണ്ട് സംഗീതത്തെ വളരെയധികം ഇഷ്ടപ്പെടും സംഗീതമെന്ന് പറയുന്നത് എന്ത് കൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതെന്നറിയത്തില്ല അത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നുണ്ട് നമുക്കൊരു പോസിറ്റീവ് വൈബ് നൽകുന്നുണ്ട് മനസ്സിന് മനസ്സിൻ്റെ പ്രയാസങ്ങളെ ഒഴുക്കിക്കളയുന്നുണ്ട് നമ്മളെ അത് വേറൊരു ലോകത്തേക്കെത്തിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം സംഗീതമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മള്ക്ക് ഒരു ആനന്ദമാണ് ഇപ്പോള് ഞാനൊരു പാട്ട് കാണാൻ എന്നെ ഫ്രീ ആയിട്ട് വിടുവാണ് നീ ഒരു പാട്ട് കേട്ടിട്ട് വാ അല്ലെങ്കിൽ നീയൊരു പാട്ട് കേള്ക്കെന്നു പറയുമ്പോൾ അത് മനസ്സിനുണ്ടാക്കുന്ന സന്തോഷമെന്ന് പറയുന്നത് അതിന് കിട്ടുന്ന സമയമെന്ന് പറയുന്നതും വളരെയധികം സന്തോഷം നൽകുന്നതാണ് അത് വാക്കുകളൊന്നും നമ്മള്ക്കതിന് കിട്ടാറില്ല ഏത് തരം സംഗീതമാണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മള്ക്ക് മനസ്സിലെപ്പോളെന്താണോ സന്തോഷം നൽകുന്നത് അത് നമ്മടെ മോഹൻ ലാല് പറയുന്നത് സംഗീതമെന്ന് പറയുന്നതനന്ത സാഗരമാണ് അതിൻ്റെ തീരത്തിരിക്കുന്ന ഒരു കുട്ടി പോലുമല്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മളിങ്ങനെ തോണ്ടി ഈ നമ്മള്ള് കായലിലൊക്കെ മീൻ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ അതായത് ഒര് ചൂണ്ടയിട്ട് കൊടുത്തിട്ട് നമ്മള് കുറച്ചു നേരം ഇരുന്നിട്ട് അതീന്ന് നമുക്ക് ചിലപ്പോള് കിട്ടുന്നത് ഒരു പൂഞ്ഞാട്ടി കുഞ്ഞായിരിക്കാം അല്ലേ ചിലപ്പൊരു കുഞ്ഞ് പള്ളത്തി കുഞ്ഞായിരിക്കാം എന്ന് പറയുന്നത് പോലെ സംഗീതമെന്ന് പറയുന്നൊരു മഹാ സാഗരമാണ് അതിൻ്റെ അറ്റത്ത് പോയിരുന്നാല് പൂഞ്ഞാട്ടി കുഞ്ഞിനെ പിടിപ്പിക്കുന്നത് പോലെയാണ് സംഗീതമെന്ന് പറയുന്നതെനിക്ക് പറയാൻ തോന്നുന്നത് കാരണം ഞാനൊന്നുമൊന്നുമല്ല സംഗീതം പക്ഷെ സംഗീതത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് സംഗീതമെന്ന് പറയുന്നത് നമുക്ക് കേള്ക്കുമ്പോള് മനസ്സിനൊരു കുളിർമ്മ മനസ്സിനൊരു പോസിറ്റീവ് വൈബ് അത് കേള്ക്കാൻ കിട്ടുന്ന സമയങ്ങൾ പാഴാക്കാറില്ല മാക്സിമം നമ്മള് കേള്ക്കും കേള്ക്കുകയും ചെയ്യും അത് കേള്ക്കുന്നത് മാത്രമല്ല അതോനോടൊപ്പിച്ച് പാടാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് സംഗീതം വാക്കുകൾക്കുമപ്പുറമാണ്